എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്നു വെച്ചാൽ നമ്മൾ ഒരു ബൈക്കെടുക്കുക ഒരു ഹിമാലയൻ എക്സ്പ്രെസ്സൊക്കെ എടുത്ത് നമ്മുടെ മണാലിക്ക് ഒരു ട്രിപ്പ് പോവാൻ ഞങ്ങൾ ഒരു സോളോ ട്രിപ്പ് പോലെയാണിപ്പോൾ എൻ്റെ മൈൻ്റുള്ളത് അവിടെച്ചെന്നിട്ട് അവിടുത്തെ ട്രൈബിൻ്റെ കൂടെ അവരുടെ കൂടെ എനിക്ക് സ്പെൻ്റ് ചെയ്യണം അങ്ങനെ ഒരിതാണ് എൻ്റെ ഈ മനസ്സിൽ ഉള്ളൊരു ഏറ്റവും താൽപ്പര്യമായിട്ട് എൻ്റെ മനസ്സിൽ മനസ്സിലുള്ളത് ലക്ഷ്യസ്ഥാനം മണാലിയാണ് മെയിനായിട്ടുള്ള സ്ഥലം പിന്നേ വലിയ ട്രെൻ്റുകൾ എന്നു വെച്ചാൽ പ്രത്യേകിച്ച് ട്രെൻ്റുകളൊന്നുമല്ല അവരുടെ കൂടെയെങ്ങനെ താമസിക്കാൻ പറ്റുമോ അവർ എത്ര ലോക്കലായിട്ടാണോ ജീവിക്കിന്നത് അല്ലെങ്കിൽ എത്ര ഹൈയ്യിലാണ് ജീവിക്കുന്നത് അതുപോലെ നമ്മൾക്ക് താമസിക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയാണ് എനിക്ക് അറിയേണ്ടത്